ഉം തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട് കൃഷി മത്സ്യബന്ധം മൃഗപരിപാലനം ക്ഷീരോത്പാദനം എന്നിവ കൃഷിയിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇപ്പം ഇടുക്കി ജില്ലയിലാണെങ്കിലും കൂടുതലും ആൾക്കാർ കൃഷിയൊക്കെ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് അവരുടെ വരുമാന മാർഗ്ഗവും അത് തന്നെയാണ് ഈ ഏലം അങ്ങനെത്തെ സാധനങ്ങളൊക്കെയാണ് അവരുടെ കൂടുതലായിട്ടുള്ള വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് അപ്പം അത് വളരെ നല്ല രീതിക്ക് തന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ മൃഗങ്ങളാണെങ്കിലും പശു കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ഇപ്പോഴത്തെ നിലവിലെ ചില ചില കുടുംബങ്ങളിലെ നിലവിലെത്തെ അവരുടെ വരുമാന മാർഗം പശുവിൻ്റെ പാല് പിന്നെ ആട്ടുംപാൽ പിന്നെ കോഴിമുട്ട അങ്ങനെത്തെയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് കൂടുതലും ആളുകളിപ്പോൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അതവരെ വളരെ നല്ല രീതിക്കുതന്നെ ഹെല്പ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം കൃഷിയാണെങ്കിലും മീൻകൃഷി ചെയ്ത് ഒത്തിരി ആളുകൾ ഇപ്പം സമൂഹത്തിലേക്ക് വരുന്നുണ്ട് കാരണം മീൻകൃഷി വളരെ നല്ല രീതിക്ക് നമുക്ക് കടലിലെല്ലാം കിട്ടി കടലിൽനിന്നെല്ലാം ആളുകൾ മീൻ കൊണ്ടുവരുമ്പോൾ കുറച്ചുംകൂടി നല്ല രീതിയിൽ നല്ല ഫ്രഷ് മീൻ കൊടുക്കാൻ വീടുകളിലെ മത്സ്യകൃഷികൾ വീടുകളിൽ മത്സ്യകൃഷി ചെയ്യുന്ന ആളുകൾക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് വളരെ നല്ലയൊരു കാര്യമാണ് അങ്ങനത്തെ പല കാര്യങ്ങളും മുമ്പോട്ട് ഇപ്പം ഇടുക്കി ജില്ലയിലെ ആളുകൾ എത്തിച്ചേരുന്നുണ്ട് ഇടുക്കി ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ പല ആളുകളും ഇപ്പം മുമ്പിലേക്ക് വരുന്നുണ്ട് ഈ പറഞ്ഞപോലെ മൃഗപരിപാലനം മൃഗപരിപാലനത്തിന് വരുന്ന ഒരു കാര്യമാണ് ഈ മീൻകൃഷി സിലോപ്പി അങ്ങനെത്തെ വലിയ വലിയ മീനുകളെല്ലാം കൊടുത്ത് ഒരു അത്യാവശ്യം വരുമാനമാർഗ്ഗം അത് ഗവൺമെൻറ്റ്നും കിട്ടുന്നുണ്ട് അതിൻ്റെ ടാക്സും കാര്യങ്ങളായിട്ടെല്ലാം ഗവൺമെൻറ്റ്നും കിട്ടുന്നുണ്ട് പിന്നെ കൂടാതെ നല്ലൊരു വരുമാനം അവർക്കും ലഭിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പറയാനാണെങ്കിൽ ഈ പറഞ്ഞപോലെ കൃഷി കൃഷിയിൽ ഏലം ജാതി തെങ്ങ് അങ്ങനെത്തെ കുറേ കാര്യങ്ങളിൽ ഏലം കൊണ്ടാണങ്കിലും ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന കൃഷിയാണ് ഏലം അത് വളരെ വളരെ വളരെ ഹെൽപ്ഫുള്ള് ആണവർക്ക് എന്താ പറയുക എല്ലാവർക്കും തന്നെ നല്ല രീതിക്ക് റവന്യൂ കിട്ടിത്തുടങ്ങുന്നുണ്ട് അതിൽനിന്ന് തന്നെ ഇപ്പം കൃഷിയിൽനിന്ന് തന്നെ അവർ എക്സ്പോർട്ടിങ് പിന്നെ സ്പൈസസ് ഗാർഡന് അങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്ക് ഈ ഏലം കൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് അത് വളരെ നല്ല ഒരു കൃഷി വളരെ നല്ല രീതിക്ക് തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ ആളുകളെ ഹെൽഫ് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് പിന്നെ പിന്നെ പറയാനാണെങ്കിൽ സാങ്കേതികവിദ്യ ഈ പറഞ്ഞപോലെ മീൻകൃഷിയാണെങ്കിലും അങ്ങനെത്തെ കാര്യങ്ങളെല്ലാം അവർ ഫോൺ വഴി ഇപ്പം ഫേസ്ബുക്കില് മാർക്കറ്റിങ്ങ് ചെയ്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടോ ഇൻസ്റ്റാഗ്രാമിലോ റീല് ചെയ്തോ അങ്ങനെയെല്ലാം അവർ അവരുടെ പ്രമോഷൻ കാര്യങ്ങളെല്ലാം ചെയ്ത് അത് അത്യാവിശ്യം നല്ല രീതിക്കുതന്നെ അവർ അവരുടെ ഇൻകംസ് ലൈക്ക് അവർ അവരുടെ കാര്യങ്ങൾ അവരുടെ കസ്റ്റമേഴ്സിനെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ അവർക്ക് ഇപ്പം ഇടുക്കി ജില്ലയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ പല സ്ഥലങ്ങളിൽനിന്നും അവർക്ക് ഓഡറുകൾ ലഭിക്കുകയും അതുവഴി അവർക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ചിലർ നല്ല നല്ല വലിയ വലിയ വെബ്സൈറ്റുകളുണ്ടാക്കി അതുവഴി അവർ ചെയ്യുന്നവരുണ്ട് അതുകൂടാതെ ഈ പറഞ്ഞപോലെ മാർക്കറ്റിങ്ങ് ചെയ്ത് ചെയ്യുന്നവരും ഉണ്ട് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതെല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ള് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയുള്ളൂ